ആ ഹലോ ഡോക്ടർ ലഷ്മി സ്പീക്കിംഗ് ആണോ നിങ്ങൾ എന്തെങ്കിലും ടാബ്ലെറ്റ് എടുത്തായിരുന്നോ ഒരു ദിവസമേ ടാബ്ലെറ്റ് എടുത്തുള്ളോ മൂന്ന് നേരമായിട്ട് എടുത്തോ മൂന്ന് നേരം എടുത്തോ ഒരു ടാബ്ലെറ്റ് ആയിട്ടാണ് കഴിച്ചിട്ടുള്ളൂ അല്ലേ ഒരു ദിവസം കഴിച്ചല്ലേ എന്നിട്ട് കുറവ് ഇല്ലേ അത് അന്ന് പോയിട്ട് വീണ്ടും വന്നോ തല വേദന

തല വേദന മാത്രമേ ഉള്ളുവോ അതോ പനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വയറു വേദന ഒന്നും ഇല്ല അല്ലേ നിങ്ങൾ ലാപ്ടോപ്പ് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന ആളാണോ ഓ ഒരു എട്ട് മണിക്കൂർ ഒക്കെ വരെ യൂസ് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവരിൽ ഇങ്ങനെ തലവേദന ഒക്കെ കാണുന്നുണ്ട് ഇന്ന് നിങ്ങൾ സ്പെക്റ്റകിൾസ് യൂസ് ചെയ്യുന്നുണ്ടോ ഉണ്ടായിരുന്നല്ലേ ചിലപ്പോൾ പവറിൻ്റെയും പ്രശ്നം കാണുമായിരിക്കും അപ്പം നമ്മൾക്ക് നിങ്ങൾ ആ നിങ്ങൾ എന്നാൽ നേരിട്ട് ഒരു ദിവസം എൻ്റെ ക്ലിനിക്കിലോട്ട് ഇറങ്ങുവായിരുന്നെങ്കിൽ നമ്മൾക്കത് കണ്ണൊക്കെ ഒന്നു കൂടെ ഒന്ന് ഐ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നമുക്ക് അതിൻ്റെ വേണ്ട ഗ്ലാസ് വേണോ അതോ ലെൻസ് മതിയോ എന്നൊക്കെ ഒന്ന് ഡീറ്റെയിൽ ഒരു ചെക്കപ്പ് നടത്താം

ആ ഞാൻ നാല് മണി മുതൽ ഏഴ് മണി വരെ ക്ലിനിക്കിൽ ഉണ്ട് എൻ്റെ ക്ലിനിക്കിൻ്റെ ലൊക്കേഷൻ നിങ്ങ ളുടെ ഇത് വാട്ട്സ്ആപ്പ് നമ്പര് തന്നെ അല്ലേ ഇത് അല്ലേ ആ ആ ക്ലിനിക്കിൻ്റെ ലൊക്കേഷൻ അറിയില്ലെങ്കിൽ ഞാൻ അത് ഗൂഗിള് ചെയ്തേക്കാം ക്ലിനിക്കിൻ്റെ ലൊക്കേഷൻ ആ അപ്പം അപ്പോൾ നിങ്ങൾക്ക് അത് അനുസരിച്ച് ഇങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റും കേട്ടോ എന്നാ അവർ ഒരു എന്നാൽ നോക്കിയിട്ട് എന്നാൽ എന്നാൽ സമയം കിട്ടുന്ന ദിവസം നാളെയോ മറ്റന്നാളോ മറ്റോ ഇറങ്ങ് കേട്ടോ ആ ആ എന്നാൽ നാളെ തന്നെ വാ നാളെ വൈകുന്നേരം ഒരു നാല് മണി കഴിഞ്ഞിട്ട് എത്തിയാൽ മതിയെങ്കിൽ ശരി എന്നാൽ ഓക്കെ ആ എന്നാൽ ബുക്കിംഗ് ഉണ്ട് എന്നാൽ ഞാൻ നിങ്ങളുടെ പേര് ഞാൻ തന്നെ ബുക്ക് ചെയ്ത് ഇട്ടേക്കാം പേര് എന്തായിരുന്നു അർച്ചന ആ അർച്ചന ആ ഓക്കെ എന്നാൽ ഏകദേശം അർച്ചന ഒരു നാലേ പതിനഞ്ചിന് എത്തിച്ചേരണേ ആ അർച്ചനയ്ക്ക് ഇവിടെ അപ്പോയിൻറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ആ ആ എങ്കിൽ ശരി എങ്കിൽ ശരി ഓക്കെ വെൽക്കം